ഞങ്ങൾ സാധാരണ ചിത്രങ്ങൾ എഡിറ്റ്യ്യാൻ ഉപയോഗിക്കുന്ന ആപ്പ് സ്നാപ്പ് സീഡ് അഡോബ് അഡോബ് ഫോട്ടോ ഫോട്ടോ ഫോട്ടോഷോപ്പ് തുടങ്ങിയ ആപ്പുകളിലൂടെയാണ് നമ്മൾ ചിത്രങ്ങൾ എഡിറ്റ്യ്യാൻ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ആപ്പുകളാണ് എല്ലാ മനുഷ്യർക്കും സാധാരണ മനുഷ്യർക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആപ്പുകളെല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വിധത്തിലും ഏതൊരാൾക്കാർക്കും വേഗത്തിൽ നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും ഈ ആപ്പുകളിൽ നമുക്ക് ചിത്രങ്ങളുടെ ചിത്രങ്ങൾ വിവിധ രീതിയിൽ നമുക്ക് മാറ്റാനും ഭംഗി കൂട്ടാനും ഒക്കെ സാധിക്കുന്ന ഒരു ആപ്പാണ് അതുകൊണ്ടു തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചിത്രങ്ങൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ്യ്യാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും ഭംഗി കൂട്ടാനും ഭംഗി കുറയ്ക്കാനും ആൾക്കാരെ മാറ്റുന്നതിനും ക് കുറയ്ക്കുന്നത് ച് ചിത്രങ്ങൾ ആഡ്യ്യുന്നതിനും തുടങ്ങി പലവിധ ഉപയോഗങ്ങളാണ് ഈ ആപ്പുകൾ വഴി നമുക്ക് സേവനങ്ങൾ കിട്ടുന്നത് അതുകൊണ്ട് ഈ ആപ്പുകൾ നമുക്ക് നിഷ്പ്രയാസം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെതന്നെ ഈ ആ ചിത്രങ്ങൾ നമ്മളെഡിറ്റ് ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ഇഷ്ടത്തിൽ ഈ ചിത്രങ്ങൾ കാണുന്നതിനും ഈ ചിത്രങ്ങൾ നമുക്കിപ്പോൾ ഒരു ഒരു സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുന്നതിന് ഈ ചിത്രത്തിന് ഇത്ര കെ ബിയെ പാടുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ചിത്രത്തിൻ്റെ കെ ബി ആപ്പുകൾ വഴി നമുക്ക് ഈ ആപ്പുകൾ വഴി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഈ ആപ്പിൻ്റെ ഈ ക്വാളിറ്റിയും അത് തന്നെയാണ് നമ്മളേക്കെ ഈ ചിത്രങ്ങളുടെ ചിത്രങ്ങളുടെ ഭംഗി കൂട്ടാൻ ഈ ആപ്പുകൾ വളരെ സഹായകരമാണ് ഈ ചിത്രങ്ങളുടെ ഭംഗി കൂട്ടുകയെന്നു പറയുമ്പോൾ കാഴ്ചയിൽ ഭംഗി കൂട്ടാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ ചി ഇപ്പോള് നമുക്ക് ഇൻസ്റ്റാമിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരു ചിത്രം അപ്ലോഡ്യ്യണം പക്ഷേ ആ ചിത്രത്തിന് ഒരു ഭംഗിക്കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാപ്പ് സീഡ് ഫോട്ടോഷോപ്പ് തുടങ്ങിയ ക ചെ ആപ്പുകളിലൂടെ നമുക്കീ ചിത്രം നമുക്ക് വേണ്ട രീതിയിൽ ഭംഗി കൂട്ടാൻ പറ്റും അതുകൊണ്ട് വളരെ ഉപകാരപ്രദമായ ഒന്ന് രണ്ട് ആപ്പുകളാണ് സ്നാപ് സീഡ് ഫോട്ടോ ഷൂ ഫോട്ടോഷോപ്പ് തുടങ്ങിയ കാര്യങ്ങൾ പക്ഷേ ഞാൻ പൊതുവേ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പെന്നു പറയുന്നത് സ എൻ്റെ ഫോണ് സാംസങ് ഫോണാണ് ഈ സാംസങ് ഫോണിൽ നമുക്ക് ഇൻബിൾഡായിട്ടൊരു എഡിറ്റിംഗ് ഓപ്ഷൻ തന്നെയുണ്ട് ഈ എഡിറ്റിംഗ് ഓപ്ഷൻ വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ഓപ്ഷനാണ് അതുകൊണ്ട് വളരെ എളുപ്പത്തില് നമുക്ക് കൃത്യതയോടു കൂടിയും വ്യക്തതയോടും കൂടെ നമുക്ക് ഈ എഡിറ്റിംഗ് നടത്താൻ സാധിക്കും ഈ ഈ ആപ്പിലൂടെ സ നടത്താൻ സാധിക്കും അതുകൊണ്ട് സ്നാപ്പ് സീഡ് തുടങ്ങിയ ആപ്പുകൾ ഞാൻ ഉപയോഗിക്കുമെങ്കിലും താരതമ്യേന ഞാനേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പെന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഇൻബിൽഡായിട്ടുള്ള ആപ്പ് തന്നെയാണ്